എൻ്റെ പ്രദേശത്ത് അങ്ങനെ ആളുകൾ പോകാറുള്ള സ്ഥലങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പം കുറച്ചായിട്ട് അവിടെ ഒരു ഒരു വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു തട്ടുകട ഉണ്ടായിരുന്നു ഒരു പാടത്തിൻ്റെ സൈഡായിരുന്നു എന്നാൽ അങ്ങനെ ഇങ്ങനെയൊന്നും ആൾക്കാരവിടെ പോയിരുന്നില്ല പക്ഷേ ഇന്ന് ഞങ്ങളെ പഞ്ചായത്ത് അതിനെ ആ ഏരിയ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ എൻ്റെ ആ തട്ടുകടയുടെ സൈഡിൽ തന്നെ ഇൻറ്റർലോക്കിടുകയും ഇരിക്കാനുള്ള സെറ്റപ്പും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പാർ ജിമ്മിൻ്റെ സെറ്റപ്പും ചെയ്തു വേറൊരു ഷോപ്പും വന്നു അവിടെ തന്നെ അപ്പം അതൊരു ഈവനിങ്ങ് ടൈമിൽ നല്ലൊരു നല്ലൊരു സ്ഥലമായി മാറി ഒരു സൺ സൺ സെറ്റിൻ്റെ ടൈമിലൊക്കെ നല്ല ഭംഗിയാണ് നല്ല കാറ്റുണ്ടാവും പാടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കുറച്ചായിട്ട് ആളുകളെല്ലാവരും ആ സമയത്ത് ചായകുടിക്കാൻ ഒന്ന് വൈബടിക്കാനൊക്കെ ആയിട്ട് ആ ഏരിയയിലേക്ക് പോവും ആദ്യം ഞാനും അങ്ങനെ പോയിരൊന്നൊന്നുല്ല പക്ഷേ ഒരു ദിവസം എൻ്റെ കസിന് എന്നെ കൂട്ടിയിട്ട് പോയി ഞങ്ങൾ ചായ കുടിച്ചു പക്ഷേ നല്ലൊരു നല്ലൊരു ആമ്പിയൻസും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് അപ്പം ഞാനെന്ത് ചെയ്തു പിറ്റേ ദിവസം കോളേജിൽ വന്ന് എൻ്റെ ഫ്രണ്ട്സ്കളെ നിർബന്ധിച്ചു നമ്മൾക്ക് അവിടെ പോയിട്ട് ചായ കുടിക്കാൻ നല്ല ആമ്പിയൻസാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടു പോയി ഒരു ദിവസം എന്നിട്ട് അവർക്കുള്ള ഞങ്ങൾ ചായയും കടികളും കഴിച്ച് നല്ല രസത്തിലവിടെ വൈബടിച്ചിട്ട് ഇരുന്നു എന്നാൽ അവർക്കെല്ലാവർക്കും ആ സ്ഥലം ഇഷ്ടപ്പെട്ടു എല്ലാവരും ചായ കുടിക്കാൻ ഈവനിങ്ങ് ടൈമിൽ ആ ഏരിയേലക്കാണ് പോകാറ് അപ്പം എൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ കോളേജ് ക്യാൻ്റീനിൽ നിന്ന് ഞങ്ങൾ മിക്ക ദിവസവും ഡെയിലിന്ന് പറഞ്ഞ പോലെ ഞങ്ങളെന്ത് ചെയ്യും അവിടെ ചായ കുടിക്കാൻ പോവും എന്നിട്ടിതു വഴി തന്നെ കുട്ടികളെ ജിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതുമ്മേ കളിക്കുകയും ഫുള്ള് രസത്തിൽ ചിരിച്ചും കളിച്ച് നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ പീസ് ഫുള്ളായിട്ട് ഞങ്ങളവിടെ ഇരിക്കും വളരെ നല്ല സ്ഥലമാണ് അത് അതിന് വേണ്ടി ചെയ്ത് തന്ന നമ്മളെ പഞ്ചായത്ത് നല്ലൊരു ഇതാണ് കാഴ്ചവച്ചത് അപ്പോൾ അങ്ങനെ പോണോണ്ട് പിന്നേന്ന് പറയുമ്പോൾ ഞങ്ങളവിടുന്ന് കുറച്ചും കൂടി പോയ് കഴിഞ്ഞാൽ ഒന്നല്ല ഒരു നാല് മൂന്ന് രണ്ട് നാല് കിലോമീറ്ററെങ്കിലും ഉണ്ടാവും ഉപ്പുങ്കൽ കടവെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അത് ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ എല്ലാവരും അവിടേക്കാണ് പോയിരുന്നത് ഈ സ്ഥലം വരണതിന് മുന്നേ കാരണം അവിടെ ഈ പറഞ്ഞ പോലെ പാടമാണ് രണ്ട് സൈഡിലും പാടമാണ് ചായക്കട ഉണ്ട് നല്ല കാറ്റുമാണ് പക്ഷെ ഇത് ഇതിൻ്റെ അത്ര ആമ്പിയൻസില്ല പക്ഷേ അന്ന് വേറെ സ്ഥലമില്ലാത്തന്നെ എല്ലാരവ്ടക്കാ പോയിരുന്നത് സ്ഥലം ഭയങ്കര ഫേയ്മസായിരുന്നു ഉപ്പുങ്കൽ ഉപ്പുങ്കൽ കടവെന്നാണ് പറഞ്ഞിരുന്നത് പിന്ന ഡെയിലി ചായ കുടിക്കാൻ പോകലും ഞങ്ങൾ സംസാരിച്ചിരിക്കും അവിടെ പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പാടത്തുമ്മൽ കൂടെ ബണ്ട് മണ്ണ് കൂട്ടിയിട്ട് ബണ്ട് അതിമ്മകൂടെ ഇങ്ങനെ പോവാൻ പറ്റും അപ്പം ഞങ്ങൾ ബൈക്കുമ്മൽ ഇങ്ങനെ ഓരു ഓഫ് റോഡ് പോലെ അതുമ്മക്കൂടെ ഇങ്ങനെ പോകലുണ്ട് അന്ന് ആ സ്ഥലമായിരുന്നു പിന്നീട് അവിടെ മെയിൻറ്റനൻസില്ല ക്ലീയറിൻസ് ഒന്നുമില്ലാത്തത് കൊണ്ട് ആടെല്ലാരും എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടില്ല ഒരു രസോല്ലാണ്ടായി ആ സ്ഥലം ഇപ്പം എല്ലാവരും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ കുട്ടാടൻ പാടന്നാണ് പറയുക ആ സ്ഥലത്തിന് അവിടേക്ക് വരും എന്നിട്ടെന്നും ചായയും കുടിക്കും അതുപോലെ തന്നെ ഫുള്ള് വൈബടിച്ചിരിക്കും പിന്നെന്താണ് ഫ്രണ്ട്സല്ലാമായിട്ട് എൻജോയ് ചെയ്യും നല്ല കാറ്റും കൊണ്ട് മൈൻഡ് ഫ്രീ റീഫ്രഷായിട്ട് ഇരിക്കും ഇതൊക്കെയാണ് ഞങ്ങളെ ഏരിയയിലുള്ള സ്ഥലം പിന്നേന്ന് പറയുമ്പം ബീച്ചുണ്ട് ബീച്ചൂണ്ട് ബീച്ച് എന്ന് പറയുമ്പോൾ കുറേ ബീച്ച് ഉണ്ട് മന്ദലാം കുന്ന് ബീച്ച് അതലാടി ബീച്ച് ഇവിടേയും കൂട് അതുപോലെ തന്നെ അങ്ങനെ ഇഷ്ടം പോലെ ബീച്ച് ഉണ്ട് എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ടാണിത് വരുന്നത് കൂടുതലും ആൾക്കാർ ഈ മന്ദലാം കുന്ന് ബീച്ചിലാണ് പോകാറ് കാരണം എന്താണെന്ന് വച്ചാൽ അവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഫെസിലിറ്റിസ് ഉണ്ട് അതു പോലെ നല്ല സൺ സെറ്റ് കാണാനുള്ളൊരു ഒരു ആമ്പിയൻസുണ്ട് അതേ പോലെ തന്നെ ഉപ്പിലിട്ടത് കഴിക്കാനുള്ള സ്ഥലങ്ങൾ ബാത്രൂം ഫെസിലിറ്റീസ് പിന്നെ അധികം വെയിൽ കിട്ടാണ്ടിരിക്കാൻ കുറേ മരങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഇരിക്കാനുള്ള സെറ്റപ്പുണ്ട് അതാണ് കൂടുതൽ ആൾക്കാർ ഈ ബീച്ചിനായിട്ട് മന്ദലാം കുന്ന് ബീച്ചാണ് വരാറുള്ളത് മോസ്റ്റലി ഞായറാഴ്ച്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ് അവിടേണ്ടാവാറ് കൂടുതലാൾക്കാരും അവിടെക്കാണ് വരുന്നത് അപ്പം ഈയൊരു ആമ്പിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലാൾക്കാരും ഈ ഏരിയക്കാണ് വരുന്നത് മന്ദലാം കുന്ന് ബീച്ച് പിന്നെ അതുപോലെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് പോവാൻ പറ്റുന്നവർ കൂടുതൽ ഈ പറഞ്ഞ കുട്ടാടൻ പാടത്തൊക്കെ പോകൽ ഈ ചായയും ഇതും കിട്ടാൻ വേണ്ടിയിട്ട്